ഇത് ക്യാബിൻ്റെ ഓഫീസ് അല്ലേ ഒരു ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരുന്നേ പതിമൂന്നാം തിയതിലൊട്ടു ഒരു ക്യാബ് ബുക്ക് ചെയ്യണമായിരുന്നു ആ ലൊക്കേഷൻ മൈസൂര് ആണ് മൈസൂര് ആ നിങ്ങൾക്ക് അപ്പം എത്ര മണിക്കാണ് വരാൻ പറ്റുക ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു പത്ത് അല്ല ഒൻപതര പത്ത് മണിക്ക് അവിടുന്ന് ഇറങ്ങണമായിരുന്നു ആ ഒരു ടൈം നോക്കി നിങ്ങൾക്ക് വരാൻ പറ്റുമോ ആ മൈസൂരിലോട്ട് ആണ് ആ അവിടെ സിസ്റ്റർ ഉണ്ട് സിസ്റ്റർ ആ പതിമൂന്നാം തിയതി രാവിലെ ഒരു ഒൻപത് മണി ഒൻപത് അര പത്ത് മണി ഒരു ഒൻപത് അര പത്ത് മണിയൊക്കെ ആകുമ്പഴത്തേക്കും എത്തിയാൽ മതി കോഴിക്കോട് നിന്ന് മൈസൂര് വരെ പോകണമായിരുന്നു ആ അതെ അതെ നിങ്ങൾക്ക് ആ ടൈം ഓക്കെ അല്ലേ ആ നിങ്ങള് വരുമ്പം എന്നെ വിളിച്ചാൽ മതി ഞങ്ങള് അപ്പം തന്നെ ഇറങ്ങാം ലൊക്കേഷൻ മൈസൂറിലോട്ട് ആണ് ഞങ്ങള് കോഴിക്കോട് ആണ് കോഴിക്കോട് ആ അപ്പം ബുക്ക് ചെയ്തു വെക്കാൻ വേണ്ടിട്ട് ആയിരുന്നു ആ ഓക്കെ നിങ്ങള് വരുമ്പോൾ വിളിച്ചാൽ മതി അപ്പം ഞങ്ങള് ഇറങ്ങിക്കോളാം ആ ഓക്കെ ഓക്കെ ശരി